എൻ്റെ ഉപജീവന മാർഗം എന്നു വെച്ചാൽ ഞാനൊരു അക്കൗണ്ടന്റ് ആണ് അപ്പോൾ ഞാന് ഞാനൊരു ഷോപ്പിലാണ് ചെ വർക്ക് ചെയ്യുന്നത് ഡി മാർട് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അവിടത്തൊരു അക്കൗണ്ടന്റ് ആണ് ഞാന് അപ്പം എന്റെ ഉപജീവനമാർഗം എന്ന് പറയുന്നത് അവിടുന്ന് കിട്ടുന്ന സാലറി കൊണ്ടുതന്നെയാണ് പിന്നെ ഈ ജോലി തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താന്നുവെച്ചിട്ടുണ്ടെങ്കില് എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഒന്നാമത് ഞാനീ ജോലി തിരഞ്ഞെടുക്കാൻ കാരണം നമുക്ക് ടെൻഷനാണ് പൈസേന്റെ ഇടപാടാണ് ടെൻഷനാണ് അതൊക്കെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇത് ചെയ്യുമ്പം നമ്മള് ഇത്രയും പഠിച്ചതായിട്ട് നമ്മള് ആ ജോലി ചെയ്യുമ്പം നമുക്കൊരു സന്തോഷം തന്നെയാണ് നമ്മള് വിചാരിക്കുന്ന ജോലി ചെയ്യാൻ പറ്റുന്നത് നമുക്കേറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഞാനതുകൊണ്ട് സന്തോഷത്തോടെ ആ അവിടെ ആ ഷോപ്പില് അക്കൗണ്ടന്റായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എനിക്കത് വളരെ സന്തോഷമുള്ളൊരു ജോലിയായതുകൊണ്ട് ഞാൻ ചെയുന്നു